ബൈക്ക് യാത്രകൾ പലപ്പോഴും ഏറെ അത്ഭുതപ്പെടുത്തുന്നതും ഏറെ ആഗ്രഹിക്കുന്ന ഒന്നുമാണ് പലപ്പോഴും പല സ്ഥലങ്ങളിലേക്കും പോകുമ്പോൾ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നത് ബൈക്ക് യാത്ര ചെയ്യാൻ തന്നെയാണ് ബൈക്ക് യാത്രയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബൈക്ക് കൊണ്ടുള്ള യാത്രകൾ ഏത് ഇടുങ്ങിയ സ്ഥലങ്ങളിലൂടെയും അല്ലെങ്കിൽ ഏത് വിശാലമായ പാതകളിലൂടെയും അല്ലെങ്കിൽ ഏത് ഇടുങ്ങിയ നഗരങ്ങളിലൂടെയും ചേരികളിലൂടെയുമെല്ലാം നമുക്ക് ബൈക്ക് കൊണ്ട് വളരെ സുഗമമായ രീതിയിൽ യാത്ര ചെയ്യാൻ സാധിക്കും എന്നാൽ ബൈക്ക് കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പല വെല്ലുവിളി നിറഞ്ഞ പാതകളും അല്ലെങ്കിൽ വെല്ലുവിളി നിറഞ്ഞ ചുറ്റുപാടുകളും അന്തരീക്ഷവും നമുക്ക് പലപ്പോഴും സൃഷ്ടിക്കപ്പെടാറുണ്ട് അതുപോലെയുള്ള പല വെല്ലുവിളികളിലൂടെയും അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളിലൂടെയും പലപ്പോഴും നാം കടന്നുപോയതായിരിക്കും നമ്മുടെ നാടുകളിലൂടെയുള്ള ചില പാതകൾ അത് സൂചിപ്പിക്കുന്നതാണ് പലപ്പോഴും പല രീതിയിലുള്ള റോഡ് പണികൾ അതിൻ്റെ കാര്യക്ഷമമായ രീതിയിൽ നടക്കാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ അന്തരീക്ഷം ഇതുപോലെ മഴയുള്ള അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കാലാവസ്ഥയായതുകൊണ്ടും പലപ്പോഴും ടാറിട്ട റോഡുകളാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കോൺക്രീറ്റ് ചെയ്ത റോഡുകളാണെന്നുണ്ടെങ്കിലും അതുമല്ലെങ്കിൽ കട്ടപതിച്ച പാതകളാണെന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ മൺപാതകളാണെങ്കിലും എല്ലാം അത് അതിൻ്റെ നേരെയായ രീതി തെറ്റി പലപ്പോഴും കുണ്ടും കുഴിയുമെല്ലാം നിറഞ്ഞ് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കാത്ത വിധം അലങ്കോലപ്പെട്ട് കിടക്കുന്ന ഒരു കാഴ്ച ഇന്ന് സുലഭമായി കാണാൻ സാധിക്കുന്നുണ്ട് ഇതിലൂടെയെല്ലാമുള്ള യാത്രകൾ ഏറെ കഠിനമായതാണ് നമ്മുടെ നാടുകളിലൂടെയുള്ള അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് വരുന്ന പാതകളെല്ലാം അതുപോലെ ഏറെ ഏറെ സഞ്ചരിക്കാൻ ബുദ്ധിമുട്ട് നിറഞ്ഞതും അല്ലെങ്കിൽ ഏറെ സഞ്ചരിക്കാനാരും ആഗ്രഹിക്കാത്തതുമായ പാതകൾ പലപ്പോഴും ഇവിടെ കാണാറുണ്ട് പ്രത്യേകിച്ച് ഗ്രാമ പ്രദേശങ്ങളിലെല്ലാം ഉള്ളിലുള്ള ഏറെ നാട്ടിൽ നിന്നും അല്ലെങ്കിൽ ഗ്രാമത്തിൽ നിന്നും അകത്തുള്ള പ്രദേശങ്ങളുമെല്ലാം അവിടേക്കുള്ള പാതകളും അല്ലെങ്കിൽ മലയോര പ്രദേശങ്ങൾ അവിടേക്കുള്ള പാതകളുമെല്ലാം പലപ്പോഴും ഇതുപോലെയായിരിക്കും അതിനുള്ള പ്രധാന കാരണം പലപ്പോഴും മഴ പെയ്തിട്ട് മലയിൽ നിന്ന് അടിയിലേക്ക് കുത്തിയൊലിക്കുന്ന വെള്ളവും അതിലൂടെ വെള്ളത്തിനൊപ്പം വരുന്ന ചളികളും കല്ലുകളുമെല്ലാം റോഡിലും പാതകളിലുമെല്ലാം തട്ടി അത് റോഡിനെ കേടുപാടുള്ളതാക്കി തീർക്കുകയാണ് ഇങ്ങനെയുള്ള പാതകളിലൂടെ സഞ്ചരിക്കൽ ഏറെ വെല്ലുവിളി നിറഞ്ഞതാണ് അതുപോലെ ഞാൻ ഒരുപാട് രീതിയിലുള്ള പാതകളിൽ സഞ്ചരിക്കുമ്പോഴെല്ലാം ഇതുപോലത്തെ വെല്ലുവിളികൾ പലപ്പോഴും എനിക്ക് നേരിടാൻ കഴിഞ്ഞിട്ടുണ്ട്